ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുപത്തിയഞ്ച് രണ്ട് ലക്ഷത്തി എണ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് നാല് ലക്ഷത്തി എണ്പത്തി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എട്ട് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി മൂന്ന്